അല്ല ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണേ അപ്പം വയനാട്ടിൽ ഏതൊക്കെ പ്ലെയ്സ് ആണ് കാണാൻ ഉള്ളത് അതായത് ട്രഡീഷണൽ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്ന ഏതൊക്കെ പ്ലെയ്സ് ആണ് കാണാൻ ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നേ ഓക്കെ അത് എങ്ങനെയാണ് അവിടുത്തെ പരിപാടികൾ ഒക്കെ ഹ്മ് ഹ്മ് ആണല്ലേ അവിടെ എന്തൊക്കെയാണ് പരിപാടികൾ ഉള്ളത് ഉത്സവം ഒക്കെ ഏത് ഡേറ്റിൽ ആണ് തുടങ്ങുന്നത്

ആ ഓക്കെ ഓക്കെ ആ ഹാ ജനുവരി എപ്പോഴാണ് ഡേറ്റ് ആണല്ലേ നോ ആ ഹാ ഹാ നാല് ദിവസം അല്ലേ ഈ താലപ്പൊലി അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ഉണ്ടോ അവിടെ

ആണല്ലേ ആ ഓക്കെ ആ ഉണ്ടല്ലേ ആ ഹാ ഹാ ഹ്മ് ഹ്മ് ഫുഡ് ഒക്കെ അവിടെ ഉണ്ടാവുമോ സമയങ്ങളിലല്ലേ ആ ഓക്കെ ആ അങ്ങനെ ആ വരണം എന്നുണ്ട് അപ്പം നമുക്ക് ഫാമിലി ആയിട്ട് വരാനാണ് അപ്പം ഒരു രണ്ട് ദിവസം സ്റ്റേ ചെയ്തിട്ട് അപ്പം അവിടെ റിസോർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടോ ഹ്മ് ഹ്മ് അപ്പം ആണല്ലേ അപ്പം ഫുഡ് ഒക്കെയോ ആണല്ലേ ആ ഓക്കെ അപ്പം പിന്നെ ഹ്മ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ വരുമ്പം നിങ്ങളെയൊന്ന് അറിയിക്കാം അപ്പം നിങ്ങൾ എപ്പോഴാണ് കറക്റ്റ് അതായത് നിങ്ങൾ ഒന്ന് പിന്നെ അതായത് ഉത്സവം തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നേ ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ പറ്റുമോ ആ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ എന്നാൽ ഒന്ന് വിളിച്ചാൽ മതി എങ്കിൽ ഞങ്ങൾ ഓക്കെ ഹ്മ് ഹ്മ്